കായികവിനോദത്തിലെ ഏറ്റവും വലിയ നേട്ടം നമ്മുടെ ആരോഗ്യപരമായ നേട്ടങ്ങള് തന്നെയാണ് കായികപരമായ ജീവിതശൈലിയില് നിന്നും നമുക്കുണ്ടാകുന്ന ആരോഗ്യപരമായ നേട്ടം തന്നെയാണ് ഒരു മനുഷ്യനെ കായികമായ കാര്യങ്ങളില് ഏര്പ്പെടാന് സഹായിക്കുന്നത് സാഹയിക്കുന്നതല്ല നിര്ബന്ധിക്കുന്നത് നമ്മൾ കായികപരമായി ഒരു കായികം ഒരൂ ഉദാഹരണത്തിന് ഫുഡ്ബോളെന്ന് പറയുന്ന ഒരു മത്സരത്തില് നമ്മള് പങ്കെടുക്കുമ്പോള് നമുക്കുണ്ടാകുന്ന ആരോഗ്യപരമായ നേട്ടമെന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ശരീരഭാഗങ്ങളും അനങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫുട്ബോളെന്നു പറയുന്ന കായിക രംഗത്തിലൂടെ നമ്മള് നടക്കുമ്പോള് അങ്ങനെ നമുക്കുണ്ടാകുന്ന ആരോഗ്യപരമായ നേട്ടമെന്ന് പറയുന്നത് എപ്പളും നമ്മുടെ ശരീരം കാര്യക്ഷമമായിരിക്കും ക്ഷീണമോ ബുദ്ധിമുട്ടുകളോ ആരോഗ്യപരമായ രോഗങ്ങളോ നമ്മളെ തേടിയെത്തില്ല ഒരു ഫുട്ബോള് കളിക്കാരനെന്ന നിലയില് ആ കളിക്ക് നമ്മള് പങ്കെടുക്കുന്നതിനുമുമ്പ് അതിന് മുമ്പുള്ള കുറേ ശൈലികളൊക്കെയുണ്ട് അതെല്ലാം ചെയ്തിട്ടാണ് നമ്മള് ഈ ഫുട്ബോളെന്നു പറയുന്ന കളീലേയ്ക്ക് നമ്മളുണ്ട ചെല്ലുന്നത് ആയതിനാല്ത്തന്നെ അതില്നിന്ന് കിട്ടുന്ന ആരോഗ്യകരമായ നേട്ടമെന്ന് പറയുന്നത് വലുതാണ് ഒരു സര്വ്വേയുടെ എപ്രകാരം